വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വിദ്യാർത്ഥികളുടെ പഠനത്തെ നല്ല രീതിയിൽ തന്നെ അവരെ സഹായപ്രദമാക്കുന്നു അവർക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അവർക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും അവർക്കിപ്പോൾ ഒരു നോട്ട് സബ്മിഷൻ്റെ കാര്യത്തിലാണെപ്പോലും അവരെ സഹായിക്കുന്നത് ഇപ്പോൾ പുതിയ പുതിയ സാങ്കേതികപരമായ എ ഐ ടൂൾസുകൾ ഇപ്പോൾ ഫോണിൽ ഫോണിൽ ഉണ്ട് അപ്പം ഏതാവശ്യം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെയും വിദ്യാർത്ഥികൾക്ക് ഉപയോഗപരിതാണ് അവരേത് സാഹചര്യം ഇപ്പ അവർക്കൊരു നോട്ടുണ്ടോ ഒരു പ്രസൻറ്റേഷൻ ഒരു പ്രസൻറ്റേഷൻ തയ്യറാക്കാൻ തന്നെ അവരോട് പറയുകയാണെങ്കിൽ അവർക്ക് എളുപ്പമായ രീതിയിൽ തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവർക്കത് ചെയ്യാൻ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് സഹായിക്കാൻ സാധിക്കുന്നു അതുപോലെത്തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ അവർക്ക് പഠനത്തെ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ടോപ്പിക്ക് കിട്ടി അതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാകത്തിൽ മനസ്സിലാകുന്നെങ്കിലെങ്കിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ തന്നെ അവർക്ക് ഈ സാങ്കേതിക വിദ്യ സഹായത്തോടെ എ ഐ ടൂൾസിലൂടെ എ ഐ ടൂൾസ് അല്ലാതെ വേറെ ഇഷ്ടംപോലെ നിരവധി നിരവധി നിരവധി ആപ്പുകളുണ്ട് അതിലൂടെ അവരെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ പറയുകയും അതിന് അവരുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങളുടെ ഉത്തരങ്ങളും അപ്പോൾ തന്നെ അവർക്ക് ലഭ്യമാകുന്നു ഈ സാങ്കേതിക വിദ്യ വിദ്യ ഇപ്പോളൊരു ക്ലാസ്സിലൊരു പ്രസൻറ്റേഷൻ എടുക്കുവാണെങ്കിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ക്ഷണനേരം കൊണ്ട് തന്നെ വീട്ടിൽ പോയി വീടുകളിൽ പോയി ചെയ്യാൻ സാധിക്കുന്നു ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ അതുപോലെത്തന്നെ ഇപ്പം എല്ലാ നിരവധി സ്കൂളുകളിലും തന്നെ സ്മാർട്ട് ക്ലാസ്സുകള് കോളേജിലുകളിലാണേലും സ്മാർട്ട് ക്ലാസ്സുകളുൾപ്പെടെ കുട്ടികളിലിപ്പോൾ ബുക്കുകൾ ഇല്ല ഈബുക്ക് സംവിധാനം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ്ബുക്കുകൾ ഇല്ലാതെ കുട്ടികൾ ഫോണിൽ തന്നെ ഈബുക്ക് ഈബുക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലേൽ ബുക്ക് അല്ലേ എന്തെങ്കിലും നോട്ടുണ്ടേൽത്തന്നെ സാർമാർക്ക് ടീച്ചർമാർക്ക് അവരുടെ ഗ്രൂപ്പിലോട്ട് ഇടുകയും അത് നോക്കി അവർക്ക് പഠിക്കുവാനും സാധിക്കുന്നു പഴയ പോലെ എല്ലാ ബുക്കുവും എല്ലാം ബാഗില് ചുമന്ന് സ്കൂളിലും കോളേജുകളിലും പോകേണ്ട ആവശ്യങ്ങളിപ്പോൾ വരുന്നില്ല അതുപോലെത്തന്നെ വലിയ വലിയ നോട്ടുകൾ ചെറുതായ രീതിയിൽ ഈ സാങ്കേതികവിദ്യ സഹായത്തിലൂടെ ലഭ്യമാകുന്നു അത് അതുകൊണ്ട് കുട്ടികൾക്ക് എളുപ്പമായ രീതിയിൽ മാർക്കുകൾ സ്കോറ് ചെയ്യാൻ സഹായിക്കുന്നു ഈ സാങ്കേതികവിദ്യ വിദ്യാർത്ഥികളിൽ പുതിയ പുതിയ അറിവുകൾ പകരുന്നു പുതിയ അവർക്ക് പുതിയ പുതിയ അറിവുകൾ നേടാൻ സഹായിക്കുന്നു എന്താണ് അടുത്തത് പുതിയ പുതിയ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഉദാഹരണമായി ഒരു വിദ്യാർത്ഥിക്ക് വേറെ ചില കോഴ്സുകൾ അറിയാൻ അറിയണം അതിൽ പഠിക്കണം അതൊക്കെ ഈ പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അവർക്ക് സാധിക്കുന്നു എല്ലാംതന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയ വിദ്യാഭ്യാസം അല്ല പുതിയ അവർ ഉദ്ദേശിക്കുന്നത് അവർ പഠിക്കാൻ അവർ പഠിക്കാൻ നോക്കുന്ന പുതിയ കോഴ്സുകളിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവുകൾ പുതിയ സാങ്കേതികവിദ്യ അവരെ സഹായിക്കുന്നു പ്രസെൻറ്റേഷൻ നോട്ട് ഉൾപ്പെടെ മാത്രമല്ല നിരവധി ആക്ടിവിറ്റികള് അവരെ സഹായിക്കുന്നു ഇപ്പോൾ ഒരു പരീക്ഷക്ക് അടുക്കാറാകുമ്പം തന്നെ അവർക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഈ സാങ്കേതികവിദ്യയുടെ സഹായത്തോടായിട്ടും എ ഐ ടൂൾസിലൂടെ എ ഐ ടൂൾസ് നിരവധിയുണ്ട് മെറ്റായുണ്ട് ചാറ്റ്ജിപിടി അങ്ങനെ അതുപോലെ ഇപ്പോൾ തന്നെ വാട്സആപ്പിലും ഇൻസ്റ്റാഗ്രാമിലും തന്നെ മെറ്റാ എന്നൊരു ഫീച്ചറ് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അവർക്കെന്ത് ഡൗട്ടുണ്ടെങ്കിലും നേരിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചാൽ ഉടനടി തന്നെ അവർക്ക് അതിനുള്ള ഉത്തരം ലഭ്യമാകും അത് അവിടെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല അവരെ സഹായിക്കുന്നു ഈ സാങ്കേതിക വിദ്യ ഏത് കടികെട്ടി ഒരു ഉദാഹരണമായി ഇപ്പോൾ ചില വാക്കുകൾ മനസ്സിലാകുന്നില്ല അതിൻ്റെ ഉത്തരങ്ങൾ അതെന്താണ് ആ മീനിങ്ങിൻ്റെ അർത്ഥം എന്താണ് ഇതൊക്കെ ഈ സാങ്കേതിക വിദ്യകളുടെ ആയിരുന്നു അതുപോലെത്തന്നെ ഇപ്പം കോളേജുകളിലും സ്കൂളുകളിലും പരീക്ഷ പരീക്ഷകളുടെ ഇത് മാറിയിരിക്കുന്നു മൊത്തം എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ഓപ്ഷൻസ് കൊടുത്ത് ശരിയായ ഉത്തരം അവർക്ക് ഫോണിലൂടെ തന്നെ അല്ലേ അവരുടെ ലാപിലൂടെ തന്നെ ലാപ്ടോപ്പ്കളിലൂടെത്തന്നെ അവർക്ക് മാർക്ക് ചെയ്യാൻ സഹായിക്കുന്നു അങ്ങനെ ഇതിലൂടെ വിദ്യാർത്ഥികൾ അവരുടെ പഠനം അവരെ അവരുടെ പഠനത്തെ വളരെയധികം സഹായിക്കുന്നു മുന്നോക്കത്തിലോട്ട് അവരെ സഹായിക്കുന്നു അവർക്ക് നിരവധിയായ നിരവധി അറിവുകളിൽ ലഭ്യമാകുന്നു പുതിയ സാങ്കേതികത്തിലൂടെ പുതിയ സാങ്കേതികവിദ്യകളിലൂടെ പഠനത്തിൽ മികവ് തെളിയിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടേൽത്തന്നെ അത് ഏറ്റെടുക്കാനും നേരെ ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തിലൂടെ അവർക്കൊരു ഒരു ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ഇത് സഹായിക്കുന്നു പഠനത്തെ വളരെയധികം എന്ന് പറയു വളരെയധികം ബാധിക്കുന്നു എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഇപ്പം ഈ സാങ്കേതികവിദ്യ ഇപ്പം എല്ലായിടത്തുംതന്നെ ആയിട്ടുണ്ട് ഏത് സാഹചര്യത്തിലും അവരെ സഹായിക്കാൻ ഇത് സഹകരിക്കുന്നു അതുകൊണ്ട് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ സാങ്കേതികവിദ്യ എളുപ്പമായ രീതിയിൽ അവരെ സഹായിക്കുന്നു ഇത് എളുപ്പം തന്നെയാണ് പഠിക്കാനും വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പം വളരെ എളുപ്പമാണിത് യൂസ് ചെയ്യാൻ തന്നെ വളരെയധികം അങ്ങനെ ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു